പാട്ടുകൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകൾ എന്നു പറഞ്ഞാൽ അതു നല്ലതുപോലെ പഠിച്ചിട്ട് പാടിയില്ലെങ്കിൽ അവരൊക്കെ പറയുന്നതു കേട്ടിട്ടില്ലേ അതിൻ്റെ ശ്രുതി തെറ്റിപ്പോയി അല്ലേ അതിൻ്റെ താളം തെറ്റിപ്പോയി നല്ല പാട്ടുകളൊക്കെ പാടുകയാണെങ്കിൽ നമ്മൾ അതിനോടു കൂടി ഇരുന്നു താളം പിടിക്കയും അതിനോടങ്ങ് ലയിച്ചിരുന്നു പോകുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് കൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടമെന്നു പറഞ്ഞാൽ മെലഡിയും അങ്ങനെയുള്ള അടിച്ചു പൊളിപ്പാട്ടുകളാണ് പണ്ടത്തെപ്പോലെയുള്ള ശാസ്ത്രീയ സംഗീതോ അതിനോ അതൊന്നും ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ഒരു ഇതായിട്ട് കേൾക്കത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ എനിക്ക് പൊതുവേ ഇഷ്ടം നല്ല അടിച്ചുപൊളി പാട്ടാണ് അതിലെ താളവും അതിലെ ഓരോ ഡാൻസുമൊക്കെ കാണുമ്പോൾ നമ്മളും അതിനകത്തിരുന്ന് താളം പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതിൽ ഓരോ തെറ്റുകളൊക്കെ വരുന്നത് അത് അതിൻ്റെ ശ്രുതി ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള വലിയ ഗായകരൊക്കെ പറയുന്നതു കേൾക്കാം അതിൻ്റെ ശ്രുതി ശരിയായില്ല അതിൻ്റെ താളം ശരിയായില്ല അങ്ങനെ അതിനെക്കുറിച്ചൊന്നും നമുക്കത്ര പ്രാവിണ്യം ഇല്ല പക്ഷേ പാട്ട് കേൾക്കും എന്നേയുള്ളൂ അതിലെ തെറ്റുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നു അതു പാട്ടുകാർക്കെ അറിയത്തു എനിക്ക് പാടാനറിയത്തില്ല ഞാൻ പാട്ടാസ്വദിക്കുന്ന വ്യക്തിയാണ് അല്ലാതെ എനിക്ക് പാട്ടിനെ കുറിച്ച് വലിയ വലിയ പ്രാവീണമൊന്നും എനിക്കറിയത്തില്ല പിന്നെ അത് എങ്ങനെ ഒഴിവാക്കാമെന്നുവെച്ചാൽ അത് അവർ പാട്ട് പിന്നെ സംഗീതം പഠിക്കുന്ന കൊച്ചുങ്ങൾക്കൊക്കെ അതിൻ്റെ ഇത് അറിയത്തുള്ളൂ കുഞ്ഞുനാളിലെ അതിൻ്റെ ശ്രുതി ശരിയാകണം പി ഏഴു സ്വരങ്ങളുണ്ട് സരിഗമപതമ പതനിനിസയെന്നുള്ള ആസ അത് ചേർന്ന് വന്നാലേ പാട്ട് ഇതാകത്തുള്ളൂ പിന്നെ അതിനകത്തെ ലിറിക്സോ എന്തുവാ അങ്ങനെയൊക്കെ അവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിയത്തില്ല ശ്രുതി ചേർന്നില്ലെങ്കിൽ അതിൻ്റെ താളം പോകുന്നോ താളം ശരിയായില്ലെങ്കിൽ അതിൻ്റെ ലിറിക്സോ എന്തുവാ അതൊക്കെ ശരിയായില്ലെങ്കിൽ അതിൻ്റെ ഇത് പിന്നെ മൊത്തത്തിൽ പാട്ട് അവതാളത്തിലാകുമെന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് ഉണ്ട് കേട്ടിട്ടുണ്ട് പാട്ടു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ അതു നമ്മൾ അതിൻ്റെ താളം ശരിയാകണം അല്ലെങ്കിൽ അത് അവസാനം വരുമ്പോഴത്തേന് അതിൻ്റെ സ്വരം ശ്രുതി ശ്രുതി ചേർന്നില്ല അതിൻ്റെ സ്വരം ചേർന്നു വന്നില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതുപോലെ അതിൻ്റെ ശ്രുതിയും എല്ലാം നല്ലതുപോലെ ചേർന്നു വന്നാൽ മാത്രമേ നമുക്ക് ആ പാട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതിന് അതിലെ തെറ്റുകളും ഒക്കെ അവരത് നല്ലതുപോലെ കൈകാര്യം ചെയ്തത് വേദിയിൽ അവതരിപ്പിക്കുവാണെങ്കിൽ കാണികളും ശ്രോ ശ്രോതാകൾക്കും അത് ഏറ്റവും നല്ല ഒരു സംഗീതവിരുന്ന് നല്ല ആസ്വദിക്കുമ്പോൾ നല്ല അത് അവർക്ക് ഏറ്റവും നല്ല ഒരു ഒരു ആഘോഷം തന്നെ ആയിരിക്കും നല്ലൊരു സംഗീതം നമ്മൾ ഇപ്പോൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് നമുക്ക് കേൾക്കുമ്പോൾ അതിൽ എങ്ങനെയാണെന്ന് ഒരു പാട്ട് പഠിക്കാത്തൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു പാട്ട് ഒരാൾ പാടുമ്പോഴത്തേനും അതിനകത്തെ തെറ്റ് എങ്ങനെയാണെന്ന് പാട്ട് പഠിക്കാത്ത വ്യക്തിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല പക്ഷേ അതു പാട്ട് ആ ഒരു വ്യക്തി ആ സ്റ്റേജിൽ നിന്നും പാടുമ്പോഴത്തേനും ഒരു അറിയാവുന്ന ഒരു വ്യക്തിയാണ് കാ ശ്രോതാക്കളായിട്ട് ഇരിക്കുന്നേന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകും അവിടെ പോയി അല്ലെങ്കിൽ താളം ചേർന്നില്ല ശ്രുതി ചേർന്നില്ല അവിടെ സ്വരം പോയി അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെയുള്ള അതൊക്കെ അവർക്ക് മനസ്സിലാകും അതിനെക്കുറിച്ച് ഒരു പ്രാവിണ്യവും ഇല്ലാത്തവർ നമ്മൾ ശ്രോതാക്കളായി പോയിരിക്കുവാണെങ്കിൽ ചുമ്മാതെ നമ്മളിൽ പൊട്ടനാട്ടം കാണുന്നപോലെ കാ കേൾക്കാനേ പറ്റത്തുള്ളൂ എന്നിട്ട് പാടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ നല്ല പാട്ടായിരുന്നു അല്ലേ അവരുടെ പാട്ടൊരു ഗുണമില്ലാതായിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും അപ്പോൾ പഠിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ അതു നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അതിലെ തെറ്റുകൾ മനസ്സിലാക്കി നല്ല പോലെ പെർഫോം ചെയ്യാനും അറിയാം